ഗുഡ് മോണിംഗ്

എനിക്ക് പോണ്ടിച്ചേരിയിലേക്ക് പോകേണ്ടിയിട്ടുള്ള ഡീറ്റെയ്ൽസ് ഒന്ന് പറഞ്ഞെു തരാമോ ഞാനിവിടെ കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത് ഡീറ്റെയ്ൽസ് ഒന്ന് പറയാമോ

ഓക്കെ ബൈ കാറാണെങ്കിലോ ഇപ്പോൾ ട്രെയിനാണെങ്കിൽ ട്രെയിൻ ടിക്കറ്റൊക്കെ നിങ്ങൾ തന്നെ ബുക്ക് ചെയ്ത് തരുമോ ഓക്കെ ഓ